ഈ പ്രഷർ കുക്കറല്ലെങ്കിൽ സ്ലോ കുക്കർ പോലെയുള്ള പ്രത്യേക അടുക്കള ഉപകാരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ നല്ല എളുപ്പമാണ് സംഭവം ഇതിലൊക്കെ വച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗ്യാസും കുറച്ച് സമയോം ഒക്കെ ലാഭിക്കാം ഇപ്പം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാണെങ്കിൽ നമ്മൾ രണ്ടാമത് ചോറ് വേവിച്ച് പച്ചക്കറികൾ വേവിച്ച് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നതിനേക്കാളും എല്ലാം കൂടെ വെട്ടി നുറുക്കി കൂട്ടത്തിലരിയും കൂടെ കഴുകിയിട്ടാൽ ഈ കുക്കറിലൊരൊറ്റ വിസില് മതി ബിരിയാണി റെഡി സംഭവം കാര്യം എളുപ്പമൊക്കെ തന്നെയാണ് പക്ഷേ ഇതുപയോഗിക്കുമ്പോൾ ഒരുപാടപകടങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട് നമ്മൾ സ്ത്രീകൾക്ക് അത് പറഞ്ഞ് തരേണ്ട കാര്യമില്ലല്ലോ നമ്മളവിടെ കേൾക്കാറുണ്ട് ഇവിടെ കേൾക്കാറുണ്ട് കുക്കറ് പൊട്ടിത്തെറിച്ചു അല്ലെങ്കിൽ കുക്കറ് കരിഞ്ഞു കുക്കറിൻ്റെ ആവി കൊണ്ട് കൈ പൊള്ളി അങ്ങനെ പലതും അപ്പം കുക്കറിൻ്റെ ആവി എന്ന് പറയുന്നത് ഭയങ്കര അപകടകരമായ കാര്യമാണ് നമ്മൾ വിചാരിക്കും അതൊരു ആവിയല്ലേ അതിനൊക്കെ ഇത്ര പ്രശ്നമുണ്ടോ പക്ഷേ ചൂട് വെള്ളത്തിനേക്കാളും പൊള്ളാനെളുപ്പമാണ് ആവി എന്നാണ് പറയപ്പെടുന്നത് അത് കൊണ്ട് നമ്മൾ വാഷറിൻ്റെ മുകളിൽ കൈ വെയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അവിടെന്ന് ആവി വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ കുക്കറ് വേവിച്ച് വേവ് നോക്ക് വേവ് നോക്കുന്ന സമയമുണ്ടല്ലോ ആ നേരത്ത് നമ്മളെപ്പോഴും ആ ആവി മുഴുവൻ പോയി എന്നുറപ്പ് വരുത്തിയിട്ട് കുക്കറ് തുറക്കാ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ആവി മുഴുവനും നമ്മുടെ കയ്യിലേക്ക് തള്ളി വന്ന് നമ്മുടെ കയ്യ് പൊള്ളാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളെന്തെങ്കിലും ഒരു കയ്യിൽ കൊണ്ടോ അങ്ങനെന്തെങ്കിലൊരു സാധനം കൊണ്ട് നമ്മളൊന്ന് പൊക്കീട്ട് അതൊന്ന് പിടിച്ച് കൊടുത്ത് ആ ആവി മുഴുവൻ കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കുക്കറ് തുറക്കുക തുറക്കുമ്പോഴും ധൃതി പിടിച്ച് തുറക്കാതെ മെല്ലെ അതിൻ്റെ എന്താണോ ഓരോ കുക്കറിനും ഓരോ തരത്തിലായിരിക്കും അടപ്പ് തുറക്കാ അപ്പം ഏതാണ് നിങ്ങളുടെ കുക്കറിൻ്റെ അടപ്പ് തുറക്കുന്ന രീതി എന്ന് വച്ചാൽ അത് മെല്ലെ സമ്യമനം പാലിച്ച് ചെയ്യുക അടുപ്പത്തുള്ള കേസാണ് ഏതായാലും നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനാണത് അപകടം നമ്മളെളുപ്പണിയാക്കി ചെയ്യുന്നത് അവസാനം നമുക്കെരട്ടിപ്പണിയായി വരരുത് പിന്നെ ഈ കുക്കറിൻ്റെ വേവ് അല്ലെങ്കിൽ വെള്ളം എന്ന് പറയുന്നത് വളരെ പ്രധാനയമുള്ള കാര്യമാണ് വെള്ളം കുറഞ്ഞ് പോയാൽ നമുക്കറിയാം കരിഞ്ഞ് പോവാനുള്ള സാധ്യതയുണ്ട് അതല്ലാ വെള്ളം കൂടിപ്പോയാൽ കൂടുതൽ വെള്ളം കുക്കറ് വിസിലടിക്കുമ്പോൾ കൂടുതൽ വെള്ളം പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലെന്ത് സംഭവിക്കും കുക്കറിലുള്ള പണി എളുപ്പമായിരിക്കും പിന്നെ കുക്കറ്ന്ന് പറഞ്ഞാൽ എളുപ്പാക്കുവെങ്കിലും നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിട്ടേ മാറുള്ളു അതുകൊണ്ട് എന്ത് കാര്യം ഉപയോഗിക്കാങ്കിലും ശ്രദ്ധിക്യാ നമുക്കെടുക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ നമ്മളെടുക്കേണ്ട പ്രിക്കോഷൻസ് അല്ലെങ്കിൽ നമ്മളെടുക്കേണ്ട മുന്നേ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ചെയ്തിരിക്കണം